ഹലോ എന്തെടുക്കുവാരുന്നന്നെ ആണോ ആ വീട് പണി എങ്ങനെ പോകുന്നു ആണോ ആ ഒത്തിരി നാൾ പിടിക്കുമോ ഒത്തിരി നാൾ പിടിക്കുമോ എന്ന് ആണോ ആണല്ലേ ഇപ്പം എന്ത് വര്ക്കാ നടന്നുകൊണ്ടിരിക്കുന്നത് ആണോ ആ ആ അങ്ങനെയാണല്ലേ ആഹാ ആ അപ്പം ആ വീട് പണി തീര്ന്നാൽ ഉടന് ഉടനെ തന്നെ മറ്റേ വീട്ടിൽനിന്ന് ഇങ്ങോട്ട് മാറുമോ

ആ ഫംഗ്ഷന് വെച്ചിട്ട് ആഹ് ഞാന് വിളിച്ചത് ആ വിളിച്ചതെന്തായിരുന്നെന്ന് വെച്ചാൽ എന്റെ പിള്ളേർ പത്താം ക്ലാസ്സിലും പ്ലസ്ടുവിലൊക്കെ ആണല്ലോ പഠിക്കുന്നത് അപ്പം അത് ഇവിടെ വീട് പണി ഇത്ര അടുത്താണല്ലോ വീടും ഉള്ളത് അപ്പം നമുക്ക് തൊട്ടടുത്ത് അപ്പം ഈ സൗണ്ട് അതായത് പണ്ട് സൗണ്ട് കൂടുതലായിട്ട് ഇങ്ങോട്ട് നല്ലപോലെ കേൾക്കുന്നുണ്ടേ ആ അപ്പം ഈ പിള്ളേര്ക്ക് പഠിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അത് അവരുടെ ഇത്ക്കൂട്ട് ഈ വീടിനോടടുത്തുള്ള മുറി ആയത് കൊണ്ട് തന്നെ ശെരിക്ക് സൗണ്ട് അങ്ങ് കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എക്സാമ് തുടങ്ങാറായി നാളെ തൊട്ട് ഓരോന്ന് തുടങ്ങുമേ നാളെ തൊട്ട് തുടങ്ങി ഇരുപത്തൊമ്പതാം തീയതി വരെയുണ്ട് അപ്പം അങ്ങനെയാണ് അതിൽ അവർ അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് ഞാന് വിളിച്ചതാണേ അപ്പം എന്താ ചെയ്യാന് പറ്റുക നമുക്ക് എക്സാമൊരു ഇരുപത്തൊമ്പതാം തീയതിയൊക്കെ ആകുമ്പത്തേക്കും തീരും ആ ഈ സൗണ്ടില്ലാത്ത വല്ലതും ആ ആ അങ്ങനെ വല്ലതും നോക്കുകയായിരുന്നെങ്കില് നല്ലതായിരുന്നു ആ ആ മിഷീന്റെ സൗണ്ട് ഭയങ്കരമായിട്ടേ ആഹ് ആഹ് ആ

ആ നാളെ തുടങ്ങും

ആ അങ്ങനെ നിര്ത്തി വെക്കേണ്ട ആ പയ്യെ ഇപ്പം ഉം ആഹ് ആഹ് പയ്യെ ഇപ്പം പറഞ്ഞപോലെ ഈ പത്താം ക്ലാസ്സ് ഒക്കെ ആയത്കൊണ്ട് ഇപ്പം എസ് എൽ സി എസ് എസ് എൽ സി ഒക്കെ അല്ലേ അപ്പോൾ

ആ ആ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഉം ആ രണ്ടിടത്തും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൊണ്ട് പോവുന്നതായിരിക്കും നമുക്കും നല്ലത് ആ അതെ ആ അതെ ശരിയാ ആഹ് ആ ഓ ഓക്കെ ആഹ് അങ്ങനെയൊക്കെ ചെയ്താലും മതി പിന്നെ പിള്ളേരുടെ കാര്യം ആണല്ലോ നമ്മൾ മെയിനായിട്ടും നോക്കുന്നത് അതാണ് പ്രശ്നം പിന്നെ അല്ലാതെ ഇപ്പം എന്നാ നമുക്ക് കുഴപ്പം ഇല്ല നമ്മുടെ വീട് പണിയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവര്ക്കും അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണല്ലോ നടക്കുന്നതാണല്ലോ ആഹ് പിന്നെ എക്സാമ് എക്സാമെക്കെ ഉള്ള ദിവസമാണെങ്കില് പയ്യെ സൗണ്ട് ഉള്ള വര്ക്ക് ഒക്കെ ചെയ്താല് കുഴപ്പമില്ല പിള്ളേർ സ്കൂളിലൊക്കെ പോവുമല്ലോ അപ്പം പിന്നെ എന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ലല്ലോ ആ ഇനിയിപ്പം നാളെ എന്തായാലും എക്സാമ് ഉണ്ട് അപ്പം പയ്യെ വര്ക്ക് നാളത്തേക്ക് തന്നെ അത്യാവശ്യം പണിയുള്ള വര്ക്ക് ചെയ്യുകയാണെങ്കില് കുഴപ്പം ഇല്ലായിരുന്നു ആഹ്

ആഹ് ആ ഓക്കെ എന്നാൽ ശരി ആ അതങ്ങനെ